ആ ഹലോ നിങ്ങളിപ്പോൾ എവിടെ എവിടെ എത്തി അടൂര് വന്നോ അടൂരെവിടെ ബസ്സ് സ്റ്റാൻഡ് ബസ്സ്റ്റാൻ്റിൻ്റ അവിടെ ഓക്കെ അന്നേരം ബസ്സ്റ്റാൻ്റിൻ്റെ അവിടെ നിന്ന് നിങ്ങളവിടെ എത്തിയില്ലെങ്കിലും നിങ്ങൾ നേരെ പത്തനാപുരം റൂട്ടിലോട്ട് പത്തനാപുരം റൂട്ടിലോട്ട് നേരെ മുൻപോട്ട് വരിക മുൻപോട്ട് വരുമ്പോൾ അവിടെ നിന്ന് തട്ടക്ക് തിരിയും തട്ടാ ഭാഗത്തോട്ട് തിരിയും തട്ട റോട്ടിലോട്ട് തിരിഞ്ഞ് കയറിയിട്ട് നേരെ പന്നിവിട വരിക പന്നിവിട വന്നിട്ട് പന്നിവിട അവിടെ ഒരമ്പലം ഉണ്ട് അവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന റോട്ടിലോട്ട് തിരിയുക ഇടത്തോട്ട് കിടക്കുന്ന റോട്ടിലോട്ട് തിരിഞ്ഞിട്ട് ഏകദേശം ഒരു ഒരു അര കിലോമീറ്ററോളം മുൻപോട്ട് വരിക വരിക അരകിലോമീറ്ററ് മുൻപോട്ട് വരുമ്പോള് അവിടെ നിന്ന് പിന്നെയും ഇടത്തോട്ടൊരു റോഡുണ്ട് ആ റോട്ടിലോട്ട് തിരിയുക അവിടുന്ന് നേരെ തിരിഞ്ഞിട്ട് ആ റോഡ് അവിടെ വരുമ്പോൾ അവിടെ രണ്ട് കനാലിൻ്റെ കനാലുണ്ട് കനലിൻ്റ അവിടുന്ന് ആ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അവിടുന്ന് തിരിയാതെ നേരെ തന്നെ വരുക നേരെ വന്നിട്ട് അവിടെ സെൻ്റ് തോമസ് സ്കൂള് സെൻ്റ് തോമസ് എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് അവിടുന്ന് പിന്നെയും മുമ്പോട്ട് വരിക ഏകദേശം ഒര അര കിമീ കിലോമീറ്ററോളം മുൻപോട്ട് വരുമ്പോൾ നേരെ മുമ്പോട്ട് വന്നിട്ടൊരു നല്ലൊരു കയറ്റമാണെ ആ കയറ്റം കയറി അതിൻ്റെ ടോപ്പിൽ എത്തുമ്പോഴൊര് ചർച്ച് ഉണ്ട് ങേ ആ ചർച്ചിൻ്റ അവിടുന്ന് ഇച്ചിരി മുൻപോട്ട് വരുമ്പോൾ ആ റോഡ് രണ്ടായിട്ട് മാറുന്നുണ്ട് അപ്പം അവിടെ ഒരു മില്ല് അരിയൊക്കെ പൊടിക്കുന്ന ഒരു മില്ല് ഉണ്ട് ആ മില്ലിൻ്റെ അവിടുന്ന് റോഡ് രണ്ടായിട്ട് പിന്നെയും പിരിയുന്നുണ്ട് അപ്പം അതും ഇടത്തോട്ട് പോകാതെ വലത്തോട്ട് തന്നെ തിരിയുക വലത്തോട്ട് തിരിഞ്ഞ് നേരെ വരിക നേരെ കുറെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നേയും റോഡ് രണ്ടാകുന്നുണ്ട് രണ്ടായിട്ട് പിരിയുന്നുണ്ട് അങ്ങോട്ട് അവിടുന്ന് ഇടത്തോട്ട് പോകാതെ പിന്നേയും വന്ന റോഡ് തന്നെ നേരെ മുൻപോട്ട് വരിക വന്നുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു വലിയൊരു ഒരു കയറ്റമാണ് കയറ്റം കഴിഞ്ഞ് ടോപ്പിൽ വരും പിന്നെ ആ ടോപ്പിൽ നിന്ന് നേരേ താഴോട്ട് താഴോട്ടെക്കിറങ്ങി ഒരു വയലൊക്കെയാണ് ആ വയലിൻ്റെ അങ്ങോട്ട് ഇറങ്ങി വരുമ്പഴ് അവിടെ റോഡ് പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും ഉണ്ട് അത് നമ്മള് ഇടത്തോട്ട് പോകാതെ വലത്തോട്ട് കയറുക ഒരു വളവാണ് വളഞ്ഞ് വലത്തോട്ട് കയറി നമ്മള് നേരെ വരുമ്പോൾ അവിടെ ഒരു കടയും ഒക്കെ ഉണ്ട് ആ റോഡ് നേരെ തന്നെ വന്ന് വളഞ്ഞ് കയറി മുൻപോട്ട് മുൻപോട്ട് അങ്ങനെ വരിക മുൻപോട്ട് വരുമ്പം മുൻപോട്ട് വരിക അതിന് ശേഷം അവിടൊരു കയ് കയറ്റമുണ്ട് കയറ്റം കഴിഞ്ഞ് കുഞ്ഞ് ചെറിയൊരു അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഒരു സ്കൂളുണ്ട് ഒരു വെൽഫേറ് സ്കൂള് ഗവണ്മെൻ്റിൻ്റെ ഒരു വെൽഫേറ് സ്കൂളുണ്ട് ആ സ്കൂള്ൻ്റ അവിടുന്ന് കുറച്ച് കൂടെ മുൻപോട്ട് വരിക കുറച്ചും കൂടെ മുൻപോട്ട് വന്ന് കഴിയുമ്പോൾ മുമ്പോട്ട് വന്ന് കഴിയുമ്പോൾ റോഡ് പിന്നേയും രണ്ടാകുന്നുണ്ട് അന്ന് ആ റോഡ് മുകളിലോട്ടും പോകുന്നുണ്ട് താഴോട്ട് പോകുന്നുണ്ട് അത് നമ്മള് പോകേണ്ടത് ഇടത്തോട്ട് തിരിയല്ല് വലത്തോട്ട് തിരി ഇടത്തോട്ടല്ല വലത്തോട്ട് തിരിയണം വലത്തോട്ട് തിരിഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് വലത്തോട്ട് തിരിഞ്ഞ് മുൻപോട്ട് വരിക അങ്ങോട്ട് വരുമ്പം അവിടെ ഒരു തോട് കാണും തോടൊക്കെ കഴിഞ്ഞിട്ട് ആ തോടിൻ്റെ അവിടുന്ന് ആ തോടിൻ്റ അവിടുന്ന് വലത്തോട്ട് തിരിയുക വലത്തോട്ട് തിരിഞ്ഞിട്ട് വലത്തോട്ട് തിരിഞ്ഞ് വരുന്നതാണ് അവിടെ കാണുന്ന രണ്ട് നില കെട്ടിടമുണ്ട് രണ്ട് നില കെട്ടിടത്തില് നൂറ്റി പത്താം നമ്പർ റൂമിലാണ് ഞാൻ താമസിക്കുന്നത് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു ഇനി നിങ്ങൾക്ക് മറ്റൊരു വഴി കൂടി ഞാൻ പറഞ്ഞ് തരാം അപ്പം അടൂര് നിന്ന് നേരെ നിങ്ങൾക്ക് പത്തനാപുരം റൂട്ടിലോട്ട് പത്തനാപുരം റൂട്ടിലോട്ട് വന്നിട്ട് പറക്കോട് പറക്കോട് വന്നിട്ട് നേരെ പറക്കോട് നിന്ന് വന്നിട്ട് അവിടുന്ന് അവിടെ ഒരു ജങ്ങ്ഷനൊക്കെയാണ് പറക്കോട് പിന്നെ ചന്തയും അവിടുന്ന് എൻ്റെ ജങ്ങ്ഷനോക്കെ അവിടുന്ന് നേരെ ഇടത്തോട്ട് തിരിയുക നേരെ പോകുമ്പോൾ പത്തനാപുരത്ത് പോകും അത് കൊണ്ട് നേരയല്ല അവിടുന്ന് ജങ്ങ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ ചെർണ്ണിക്കല് ചെർണ്ണിക്കലെന്ന് പറയും ആ ചെർണ്ണിക്കലെന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് ഏകദേശം ഓരൊന്നര ഒന്നര കിലോമീറ്ററോളം ഉണ്ട് അങ്ങനെ നേരെ വന്ന് ചെർണ്ണിക്കെലെന്ന സ്ഥലത്തെത്തുമ്പം അവിടൊരു ആലും ഒരു ചെറിയൊരമ്പലവും ഒക്കെ ഉണ്ടവിടെ അപ്പം അവിടെ നിന്ന് നിങ്ങള് നേരെ പോകാതെ ഇടത്തോട്ട് തിരിയുക ഇടത്തോട്ട് തിരിഞ്ഞ് കയറിയിട്ട് പിന്നെ ഇടത്തോട്ടിങ്ങനെ തിരിഞ്ഞ് കയറുക അവിടിങ്ങനെ ഏകദേശം ഒരു അര കിലോമീറ്ററ് വരുമ്പോൾ റോഡ് പിന്നേയും ഇങ്ങനെ രണ്ടാകുന്നുണ്ട് ഒന്ന് പിന്നെ വലത്തോട്ടൊരു റോഡ് വലത്തോട്ട് പോകുന്നുണ്ട് പിന്നെ നേരെ നമ്മള് വലത്തോട്ട് പോകാതെ നേരെ തന്നെ വരിക നേരെ വന്ന് അപ്പം അവിടെ കുറെ റബ്ബറും തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സൈഡിൽ കൂടെ ഇങ്ങനെ വരിക വന്ന് കഴിയുമ്പോൾ ഒരു ഒരു അങ്കൻവാടി കാണുമവിടെ അംഗൻവാടിയുടെ അവിടുന്നൊക്കെ നേരെ മുമ്പോട്ട് വരിക വന്ന് കഴിയുമ്പോൾ ആ വഴി പിന്നേയും രണ്ടാമതൊന്നും കൂടെ രണ്ടായിട്ട് പിരിയുമ്പം അത് നമ്മുടെ ഇവിടെ വലത്തോട്ട് പോകണ്ട നമ്മള് വലത്തോട്ട് നമ്മള് ഇടത്തോട്ട് നേരെ കാണുന്ന റോട്ടിൽ തന്നെ വരിക അങ്ങനെ ചെരിയോരിറക്കവാണ് ഇറക്കം എ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നല്ലൊരു കയറ്റം ആ കയറ്റം കയറി നമ്മള് നേരെ വരുന്നത് ഒരു ടോപ്പിലെത്തുമ്പം അവിടെയും ഇതുപോലെ ഒര് ചർച്ച് ഉണ്ട് ആ ചർച്ച് ൻ്റ അവിടുന്ന് നമ്മള് നേരെ വന്നിട്ട് പിന്നെ താഴോട്ടെക്കിറങ്ങി താഴോട്ടെക്കിറങ്ങി വന്നിട്ട് താഴോട്ടെക്കിറങ്ങി വരുമ്പോൾ ഈ റോഡ് പിന്നേയും രണ്ടാകുന്നുണ്ട് അത് നേരെയും പോകാം താഴോട്ട് പോകാം അപ്പം നമുക്ക് പോകേണ്ടത് താഴോട്ടാണ് താഴോട്ട് വരുമ്പോൾ ഒരു തോടും കാര്യങ്ങളുമുണ്ട് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പം കാണുന്നത് ഒരു രണ്ടുനില കെട്ടിടത്തില് അഞ്ഞൂറ്റി പത്താം നമ്പറാണ് എൻ്റെ മുറി ഓക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് എന്നെ വിളിക്കുക ഓക്കെ